ആ അതെ പറഞ്ഞോളൂ നമ്മളിപ്പം മെയിനായിട്ട് ചെയ്യുന്നത് മീൽസാണ് മാഡം മീൽസാണ് നമ്മുടെ മെയിൻ ഐറ്റം നമുക്ക് കറികളൊക്കെയെന്ന് പറയുമ്പം സാമ്പാർ തോരൻ പച്ചടി കിച്ചടി അങ്ങനെ കുറെ കറികളൊക്കെ വരുന്നുണ്ട്

ആ പായസം അതിൻ്റെ കൂടെ നമുക്ക് കോമ്മൺ ഐറ്റമായിട്ട് തന്നെ വരുന്നുണ്ട് കോമ്മണായിട്ട് വരുന്നതാണ് റേറ്റ് നമ്മൾക്ക് മീൽസിന് ഓരോന്നിന് അറുപത് രൂപ വച്ചാണ് ചാർജ് ചെയ്യുക അമ്പത് പേർക്ക് അല്ലേ

നോൺവെജ് ഇപ്പം നമുക്ക് ബിരിയാണി വരുന്നുണ്ട് മന്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് വരുന്നത് ബിരിയാണി നമുക്ക് ബീഫ് ചിക്കൻ അതൊക്കെയാണ് മെയിനായിട്ട് പിന്നെ കാട ബിരിയാണി ഉണ്ട് ചിക്കൻ ആണെങ്കിൽ നൂറ്റിപ്പത്ത് ബീഫിന് നൂറ്റിനാല്പത് കാട ഒക്കെയാണെങ്കിൽ നൂറ്റി അറുപതൊക്കെ വരും കാട ബിരിയാണിയാണെങ്കിൽ ഒരു നൂറ്റി അറുപതൊക്കെ വരും നാലെണ്ണം ആ ഓക്കെ ബാക്കി ബീഫ് അപ്പം ഇരുപത്തഞ്ചെണ്ണം അല്ലേ ടോട്ടൽ ബിരിയാണി വേണ്ടത്

ആ രാവിലെ നമ്മൾക്ക് വെജ് എന്നു പറയുമ്പോൾ നമുക്ക് ഇഡ്ഡ്ലി സാമ്പാർ അങ്ങനത്ത സാധനങ്ങളൊക്കെയാണ് രാവിലെ വരിക ദോശ മസാല ദോശയൊക്കെ ഉണ്ട് ആ മസാല ദോശയൊക്കെ വരും ആ അതൊക്കെ ഉണ്ട് മാഡം കറി ഇപ്പം നമുക്ക് വെജ് കുറുമ വരുന്നുണ്ട് പിന്നെ ചട്ണി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വരിക

അത് രാവില മൊത്തം വെജ് തന്നെയാണോ ആ ഓക്കെ ഓക്കെ ആ

ആ ഓക്കെ മാഡം വിചാറ്റ് വഴി ഓക്കെ മാഡം ഓക്കെ ഓക്കെ മാം ആ ഓക്കെ ഓക്കെ ഇപ്പം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് മാം ആ റൂംസ് നമുക്ക് അവൈലബിളാണ് അമ്പത് പേർക്കുള്ളത് അല്ലേ ആ ഓക്കെ മാഡം ആ ചെയ്യാം ആ ആയിക്കോട്ടെ മാഡം ആ ഓക്കെ ചെയ്തിട്ട് വെക്കാം

ഓക്കെ ഓക്കെ എന്നാൽ